സ്വച്ഛ് ഭാരത് മിഷൻ അതിൻ്റെ പേരിൽത്തന്നെ നമ്മളെ അതിൻ്റെ ഉള്ളടക്കവൊണ്ട് പക്ഷെ ഇതുപോലെ പല പദ്ധതികളും കേന്ദ്രസർക്കാരുകള് പണ്ടും നടത്തിയിട്ടുണ്ട് ഇതിപ്പം കുറച്ചും കൂടെ ജനകീയമാക്കാനാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും കൂടെ കൊണ്ട് ഉള്ള ഒരു ഇത് പബ്ലിസിറ്റി ഉള്ളതുകൊണ്ട് ഇത് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ ആലപ്പുഴ ഞാൻ ആലപ്പുഴക്കാരനായത് കൊണ്ട് പറയുകയാണ് ഇപ്പം ആലപ്പുഴയിൽ മുനിസിപ്പാലിറ്റി വഴി കർമ തെന്നേ ഹരിതസർമ സേന വഴി പ്ലാസ്റ്റിക് മാലിന്യം എടുത്ത് പോവുന്നുണ്ട് അപ്പം നമ്മള് കൃത്യമായിട്ടതിൻ്റെ ഫീസടച്ച് ഓരോ വീട്കളും പ്ലാസ്റ്റിക് മാലിന്യങ്ങള് മാസംതോറും അവര് കർമസേന വന്ന് കളെക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതൊരു തുടക്കം മാത്രമാണ് പക്ഷെ ഈയും എന്തുമാത്രം നമ്മള് വിദേശരാജ്യങ്ങളിലൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് പല സൈക്ലിങ്ങ് സൈക്ലിങ്ങ് മെത്തേഡിൽ പല എന്നാ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങൾ പ്രത്യേകിച്ചും സൈക്ലിങ്ങ് മെത്തേഡിലൂടെ വിദേശരാജ്യങ്ങളിൽ പിന്നെ പുതിയ പുതിയ ഇൻഡസ്ട്രിയിൽ ഡെവലപ് ചെയ്ത് പിന്നെ തൊഴില് കൊടുക്കാനും പിന്നെ അജൈവമാലിന്യങ്ങൾ വീണ്ടും നമുക്ക് പുതിയ പ്രോഡക്റ്റായിട്ട് മാറ്റി നമ്മുടെ പ്രകൃതിയെ തന്നെ സംരക്ഷിക്കാനും ഉള്ള പ്രോജക്റ്റ്കള് ഞാൻ വള പിന്നെ വിദേശരാജ്യങ്ങളിൽ നിന്ന് എൻ്റെ സുഹൃത്ത്ക്കൾ വഴിയും എൻ്റെ ബന്ധുക്കൾ വഴിയും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്ന ആലപ്പുഴയില് ഈ അജൈവമാലിന്യങ്ങൾടെ മറ്റ് ഖര മാലിന്യങ്ങൾ മാറ്റാനായിട്ടുള്ള ഒരു വകുപ്പും കാണുന്നില്ല നമ്മുടെ പരിസരവും നമ്മൾ നമ്മുടെ കുടുംബം വീടും ആ പരിസരവും നമ്മള് വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഗവൺമെൻ്റെ് ഞാനൊരു ഗവൺമെൻറ്റ് കോർട്ടേഴ്സിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട് ഗവൺമെൻറ്റ് കോർട്ടേഴ്സുകളൊക്കെ വളരെ വൃത്തിഹീനമാണ് അവര് വന്ന് വന്ന് താമസിച്ചുപോകുന്നവര് പിന്നെ ട്രാൻഫർ മേടിച്ച് പോകുന്ന പോകുമ്പോൾ പോലും അവരൊന്ന് ശ്രദ്ധിക്കുന്നില്ല വരുമ്പോൾ മാത്രം അവരൊന്ന് അവരുടെ എന്തെങ്കിലും പിന്നെ വകുപ്പ് പ്രകാരം അവരൊന്ന് ക്ലീൻ ചെയ്ത് വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നു പക്ഷെ പല മേഖലകളിൽ നമ്മൾ അജൈവമാലിന്യങ്ങൾ എല്ലാ വീട്ടുകളിലും നമ്മള് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക അജൈവമാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ അജൈവമാലിന്യങ്ങളുകൂടെ നമ്മള് കളെക്റ്റ് ചെയ്ത് സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമാണോ എന്നെനിക്കറിയില്ല പക്ഷെ അതും കൂടെ നമ്മള് കളെക്റ്റെയ്ത് കൊണ്ടുപോയി സൈക്കിൽ ചെയ്യുക റീസൈക്കിള് ചെയ്യുക പറ്റിയ സാധനങ്ങള് റീസൈക്കിള് ചെയ്യുക അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നശിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളാണെങ്കിൽ നശിപ്പിച്ച് നമ്മുടെ പരിസരത്തെയും നമ്മുടെ ജനജീവിതത്തെയും കൂടുതൽ കാര്യക്ഷമമാക്കാനായിട്ട് ഈ സ്വച്ഛ് ഭാരത് മിഷന് കഴിയട്ടെന്ന് മാത്രമേ എനിക്ക് ഇപ്പം പറയാൻ സാധിക്കുന്നുള്ളൂ കാരണം അതിൻ്റെ പേരിനാൽ അത് കൊള്ളെങ്കിലും അതിൻ്റെ പ്രായോഗികമായിട്ട് എന്തുമാത്രം നമ്മള് നമ്മുടെ മുനിസിപ്പാലിറ്റികളോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതെനിക്ക് സംശയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരിസരം വൃത്തിയായെങ്കില് മാത്രമെ പഴയ സാധനങ്ങള് മാറിപ്പോയെങ്കിലും മാത്രമേ പുതിയ സാധനങ്ങൾ കൺസ്യൂം കൺസ്യൂമർ പുതിയ സാധനം കൺസ്യൂമറിസം എന്ന് പോലെ നല്ലത് തന്നെ പുതിയ സാധനങ്ങൾ പഴയ സാധനങ്ങള് മാറ്റിയെങ്കില് പതിവ് പുതിയ സാധനങ്ങള് ആൾക്കാർക്ക് വാങ്ങിക്കാനോ ഉള്ള ഒരു പ്രോൽസാഹനം ഉണ്ടാകത്തുള്ളൂ തീർച്ചയായിട്ടും പഴയ സാധനങ്ങൾ മാറ്റിയിട്ട് പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് ഈ സ്വച്ഛ് ഭാരത് മിഷൻ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പിന്നെ സ്വയിര്യമായിട്ട് വൃത്തിയായിട്ട് ജീവിക്കാനുള്ള ഒരു ഇത് നമ്മുടെ സമൂഹത്തില് പ്രകൃതിയെ സ്നേഹിച്ച് കൊണ്ട് ജീവിക്കുവാനുള്ള ഒരു ഇത് ഇത് സ്വച്ഛ് ഭാരതിന് കഴിയട്ടെ എന്നാശംസിച്ച് കൊണ്ട് നിർത്തുന്നു